ഹലോ ആ ഇത് ഡോക്ടർ ആയിരുന്നു ആരായിരുന്നു ആ ആ പറഞ്ഞോ

ആ മഴയത്ത് അങ്ങനെ എന്തെങ്കിലും കളിച്ചിരുന്നോ

ആ തണുത്ത വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ടാപ്പിൽ നിന്ന് നേരിട്ട് വരുന്ന വെള്ളം ആണോ അതോ നിങ്ങൾ ശുദ്ധീകരിച്ച വെള്ളം അങ്ങനെ ഏതാണ് കുടിച്ചത് ഫ്രിഡ്ജിൽ നിന്നാണോ തണുപ്പിച്ച് ആറിയിട്ട് ഉണ്ടായിരുന്നില്ലേ അത് അതായത് നിങ്ങൾ തിളപ്പിച്ച് ആറ്റുന്ന എടുത്ത പാടെ കുടിക്കുകയാ ചെയ്തത് അല്ലേ ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം ഇപ്പോൾ സാധാരണ അങ്ങനെ വരാൻ സാധ്യത ഇല്ല എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ വരിക പിന്നെ പുറമേ നിന്ന് എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളോ കഴിച്ചിട്ടുണ്ടായിരുന്നോ ഒന്നും കഴിച്ചിട്ടില്ലാ അല്ലേ ഇല്ല പാരസെറ്റാമോൾ അങ്ങനെ എന്തെങ്കിലും ആ കുടിച്ചായിരുന്നോ എന്നിട്ട് കുറവ് ഉണ്ടോ കുറവ് ഇല്ല അല്ലേ ആ ആ ഇനി പാരസെറ്റാമോൾ ഉണ്ടോ രണ്ട് എണ്ണം ഉണ്ട് അല്ലേ ഇപ്പോൾ തീരെ വയ്യാണ്ട് ആയോ അതോ ചെറിയ പനി ആണോ എങ്ങനെയാ ഇല്ല തുമ്മൽ ഒക്കെ ഉണ്ട് അല്ലേ ചുമ ഉണ്ടോ ചുമ ഉണ്ട് അല്ലേ അപ്പോൾ കഫക്കെട്ട് ചിലപ്പോൾ കൂടിയിട്ട് ഉണ്ടാവും അപ്പോൾ കഫക്കെട്ട് ഉണ്ട് ഇല്ലേ ആ അപ്പോൾ കഫക്കെട്ട് തന്നെ ആണ് അപ്പോൾ കഫക്കെട്ട് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്ക് കഴിക്കേണ്ടി വരും എന്തായാലും പാരസെറ്റാമോൾ കഴിച്ചിട്ട് എന്തായാലും കുറയുന്നില്ലല്ലോ ഈ വെള്ളം ഒക്കെ ഇറക്കുമ്പോൾ വേദന ഉണ്ടോ വേദന ഉണ്ട് അല്ലേ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നമുക്ക് അതായത് ഇപ്പോൾ ആൻറ്റിബയോട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഒന്ന് ഇവിടേക്ക് വരാൻ പറ്റുമോ ഇന്ന് തന്നെ പോര് ഇന്ന് വൈന്നേരം നാല് മണി തൊട്ട് ഞാൻ നോക്കുന്നുണ്ടാവും ഇവിടെ ആ എൻ്റെ വീട്ടിലാണ് നോക്കുക അപ്പോൾ വീട്ടിലേക്ക് വന്നാൽ മതി ആ വരുമ്പോൾ ഒന്ന് അതായത് യൂറിനും ബ്ലഡും ഒന്ന് ടെസ്റ്റ് ചെയ്യണം ഓക്കെ ആ എന്നിട്ട് ഒന്ന് വന്നോട്ടോ റിസൾട്ട് ആയിട്ട് ഓക്കെ എന്നാൽ എന്നാൽ വന്നാൽ മതി എന്നാൽ